നികോൺ ആണ് ഞാൻ എപ്പോളും യൂസ് ചെയ്യാറ് ക്യാമറ ആയിട്ട് ഓരോരോ പിക്ചർ പകർത്താൻ ആണെങ്കിലും നികോൺ എ തേർട്ടീൻ അങ്ങിനെ ഉള്ള മോഡൽ അതിന് പറ്റിയ സൂപ്പർ സൂമിങ് ഉള്ള ഇതാണ് ഞാൻ എപ്പോളും ഞാൻ സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ അതാണ് കൂടുതലും എനിക്ക് സൂട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ എടുക്കുന്ന പിക്ചേഴ്സ് എടുക്കുന്നതിൻ്റെയും അതുപോലെ ക്യാമറൻ്റെയും ആണ് കിട്ടിയ മാറ്റങ്ങൾ ആയിട്ട് എനിക്ക് തോന്നിയത് അതിൽ നിന്നാണ് എനിക്ക് നികോൺ സെലക്ട് ചെയ്യാൻ താല്പര്യം തോന്നിയത്